ഇത്തരത്തിലുള്ള പ്രക്രിയകളിലൊക്കെ ഞാൻ ഏർപ്പെട്ടിട്ടുണ്ട് എനിക്ക് ചെറിയ പണ്ടൊന്നും അങ്ങിനെ ക്ലിയറായിട്ട് നീന്താനൊന്നും അറിയത്തില്ലായിരുന്നു പിന്നെ എൻ്റെ കൂട്ടുകാരുടെ കൂടെയും ചേട്ടന്മാരുടെയൊക്കെ കൂടെ ഞാൻ പോയിട്ടോരോ കുളങ്ങളിലും പുഴകളിലൊക്കെ ചാടി അങ്ങിനെയാണീ നീന്താനൊക്കെ പഠിക്കുന്നത് പിന്നെ ശേഷം ഞാൻ ഇവർടെയൊക്കെ കൂടെ ഇടയ്ക്കിടയ്ക്ക് നീന്താനും അങ്ങനെയൊക്കെ പോക്കുണ്ടായിരുന്നു അപ്പോൾ നീന്തലും കാര്യങ്ങളൊക്കെ ഞാനങ്ങനെ ക്ലിയറായിട്ട് പഠിക്കാൻ പഠിച്ചിരുന്നു പിന്നെ ഞാൻ എൻ്റെ കൂട്ടുകാരുമൊത്തിട്ട് ഞാൻ വയലുകളിലും ഗ്രൗണ്ടുകളിലൊക്കെ പോയിട്ട് ക്രിക്കറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പം ക്രിക്കറ്റ് പഠിച്ച് ആദ്യം ഇതൊന്നും നമുക്ക് എന്താ പറയാ ചെന്നൊടനെ ക്രിക്കറ്റ് കളിയ്ക്കാനൊന്നും ചേട്ടന്മാർ കൂട്ടില്ലായിരുന്നു ആദ്യം നമ്മളെ പന്ത് പെറുക്കാനൊക്കെയായിട്ട് പറഞ്ഞു വിടുവായിരുന്നു ചെയ്തോണ്ടിരുന്നത് പിന്നെ കുറെ നാൾ കഴിഞ്ഞിട്ട് ഞാൻ വന്ന് വന്ന് അവരെന്നെ കളിക്കാൻ കൂട്ടുകയും പിന്നെ ഞാൻ ബോൾ ചെയ്യാൻ പഠിക്കയും ക്രിക്കറ്റിലെ ബാറ്റ് ചെയ്യാനൊക്കെ എന്നെ ഇതാക്കൊക്കെ ചെയ്തിരുന്നു അങ്ങനെ കാലക്രമേണയാണ് ഞാനിതൊക്കെ പഠിച്ചുവന്നത് അപ്പോൾ സൊ സോ സ്വഭാവികമായിട്ട് ഞാൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ എന്നെ പൊതുവേ അവർ കളിക്കാനൊക്കെ കൂട്ടാൻ തുടങ്ങി ഇങ്ങനെയുള്ള പ്രക്രിയയിലൊക്കെ ഞാൻ ഏർപ്പെട്ടിട്ട് അങ്ങനെ അങ്ങനെയാണ് ഏർപ്പെട്ട് വന്നിരുന്നത് പിന്നെ ശേഷം ഞാനിപ്പം അത്യാവശ്യം നല്ല രീതിയ്ക്ക് കളിക്കാനും നീന്താനും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നല്ല രീതിക്ക് തന്നെ എന്താ പറയാ എൻ്റെ കഴിവ് ഞാൻ വളർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്